സമൂഹ മാധ്യമങ്ങളിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പലതരത്തിലുള്ള ഫോട്ടോഗ്രാഫേഴ്സുണ്ട് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മള് ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു നോക്കിട്ടുണ്ടെങ്കിൽ ഇപ്പം കൂടുതലും മാര്യേജ് ഫോട്ടോസ് പോസ്റ്റ് വെഡ്ഡിങ് പ്രീ വെഡ്ഡിങ് അതുപോലെ തന്നെ എൻഗേജ്മെൻ്റ് അങ്ങനെ ഒരുപാട് ഫോട്ടോസ് നിറഞ്ഞു നിൽക്കുന്നൊരു സമയാണ് അല്ലാതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാത്ത ഫോട്ടോ ഷൂട്ട്കള് അങ്ങനെ പല പല ഫോട്ടോ ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു ടൈമാണ് ഇപ്പം ഈയൊരു ടൈമ്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പംന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരാളെ മാത്രം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല പിന്നെ അതുപോലെതന്നെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറൊക്കെ ഒരുപാട് അതായത് ഒരുപാട് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറൊക്കെയുള്ളോരു ടൈമെന്നെയാണ് നമുക്ക് ഇപ്പം ഈ ഒര് ടൈമ്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൂടുതലും അതായത് പല പല ഫോട്ടോസ് കാണുമ്പോഴും നമുക്കെല്ലാവരേയും ഇഷ്ടപ്പെടും അങ്ങനെ ഒരാളെയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോൾ എൻ്റൊരു അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ഒക്കെ ചെയ്തത് ഓലക്കുടാന്ന് പറഞ്ഞിട്ടുള്ളൊരു വെഡ്ഡിങ് ഫോട്ടോഗ്രഫിയാണ് അപ്പോൾ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോയാണ് ഞാനിപ്പോൾ കണ്ടതില് വെച്ച് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവര് മാത്രല്ല ഒരുപാട് ഫോട്ടോ ഗ്രാഫേഴ്സുണ്ട് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിട്ടുണ്ടെങ്കിൽ നമുക്കൊരുപാട് കാണാൻ സാധിക്കും